ആറ് അഞ്ച് രണ്ടായിരത്തി രണ്ട് ഏഴ് പത്ത് രണ്ടായിരത്തി പതിനൊന്ന് എട്ട് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഒൻപത് രണ്ട് രണ്ടായിരത്തി പത്തൊൻപത് പതിനെട്ട് അഞ്ച് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന്